ഹലോ ആ ആ അതെ പറഞ്ഞോളൂ മാഡം ആ ഓക്കെ ഓ ഓക്കെ ആ മാഡം എന്നത്തേക്കാണ് എത്തുക എത്തും അല്ലേ ആ ഓക്കെ മാഡം മാഡം വരുമ്പോൾ നമ്മൾ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ വന്ന് പിക്ക് ചെയ്യാൻ ആണോ

ആ ഓക്കെ മാഡം ആ എത്ര പേര് ഉണ്ട് മാഡം എട്ട് പേരാ ആ ഓക്കെ അപ്പോൾ നമുക്ക് സെവൻ സീറ്റർ വണ്ടി ഇട്ടാൽ റെഡി ആവൂലല്ലേ അല്ലെങ്കിൽ രണ്ട് കാർ ആയിട്ട് ക്യാബ് ആയിട്ട് അയച്ചാൽ മതിയോ ആ ഓക്കെ ആ അപ്പോൾ മാഡം സ്റ്റേയും കാര്യങ്ങളൊക്കെ എവിടെ ഫിക്സ് ചെയ്തിട്ട് ഉണ്ടോ എന്തെങ്കിലും ഓക്കെ അത് നമ്മൾ എന്നാൽ അറേഞ്ച് ചെയ്യാം എട്ട് പേർക്കുള്ള റൂമല്ലേ അത് ഇപ്പം എങ്ങനെയാണ് കപ്പിൾസ് അങ്ങനെ ആയിട്ട് ആണോ ഫാമിലി ആയിട്ട് ആണോ ആ ഫുഡ് ഒക്കെ നമ്മൾ ഇവിടിന്നന്നെ ചെയ്ത് തരും ആ എങ്ങനെ ഫാമിലി ആയിട്ട് ആണോ റൂമ് എട്ട് പേരും കപ്പിൾസ് അങ്ങനെ ആണോ വരുന്നത് ആ ഓക്കെ ഓക്കെ അപ്പം നമുക്ക് രണ്ട് റൂമ് മതിയാവും

ആ ഓക്കെ ഡബിൾ കോട്ട് ആ സെറ്റാക്കി തരാം റിസോർട്ട് അങ്ങനെ എന്തേലും പോരെ ആ അതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യാം ഓക്കെ മാഡം ആയിക്കോട്ടെ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യാം എന്ന് തൊട്ടാണ് നമ്മൾ എന്നിട്ട് ട്രിപ്പ് പുറത്തേക്ക് ഔട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത്

തുടങ്ങാം അല്ലേ ആ ഓക്കെ മാഡം എന്നാൽ മറ്റന്നാൾ തൊട്ട് നമുക്ക് പ്ലാനിംഗ് ഞങ്ങൾ ഓൾമോസ്റ്റ് കാണാൻ പറ്റിയ സ്ഥലത്തിൻ്റെ ഒക്കെ ലിസ്റ്റ് മാഡത്തിന് വാട്ട്സ്ആപ്പ് ചെയ്തേക്കാം എന്നിട്ട് നമുക്ക് ഏത് ഡെസ്റ്റിനേഷൻ ആണോ ആദ്യം പോവണ്ട അതൊക്കെ മാഡം പറഞ്ഞ് വേണമെങ്കിൽ അതിന് അനുസരിച്ച് നമ്മൾ ചെയ്തു തരാം ആ ആയിക്കോട്ടെ മാഡം എന്തായാലും മാഡം എത്തുന്നേന് ഒരു അരമണിക്കൂർ മുൻപ് ഞങ്ങളെ വിളിച്ചാൽ മതി ഞങ്ങൾ ടാക്സി പറഞ്ഞ് വിട്ടേക്കാം ആ ഓക്കെ ഓ ഫുൾ ടൈം ട്വൻറ്റി ഫോർ ഹവേഴ്സും നമ്മൾ അവൈലബിൾ ആയിരിക്കും ഇല്ല ഇല്ല ഇല്ല നമ്മൾ ട്വൻറ്റി ഫോർ നമ്മൾ ട്വൻറ്റി ഫോർ ഹവേഴ്സും അവൈലബിൾ ആണ് ആ ഓക്കെ മാഡം അതൊക്കെ അറേഞ്ച് ചെയ്തോളാം ആ ആയിക്കോട്ടെ മേഡം

ഓക്കെ മാം